ഹലോ നമസ്കാരം ഒരു ഊർജ്ജ വിദഗ്ദനായ നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഞാൻ താങ്കൾക്ക് ഇപ്പോൾ വിളിച്ചത് എൻ്റെ വീടിന് ഒരു പുതിയ ഊർജ പദ്ധതി സ്ഥാപിക്കാൻ വേണ്ടിയാണ്

എന്ന രീതിയിലുള്ള ഒരു ഊർജ്ജ ഉപയോഗമാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ എന്നുള്ളത് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഒരു പുനരുപയോഗ ഊർജ്ജ വിദഗ്ദനായ താങ്കളോട് കൂടി ആലോചന നടത്താൻ ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ വീടിന് ശുദ്ധമായ ഊർജ്ജം ഉൽപാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സോളാർ പാനലുകളോ വിൻഡ് ടർബെയ്നുകളോ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള സാധ്യതകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് സോളാർ പാനലുകളാണ് ഞാൻ നിലവിൽ ഉദ്ദേശിക്കുന്നത് വിൻഡ് ടർബൈനുകൾ ആയാലും മതി ഒരു പക്ഷെ എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സോളർ പാനലുകളോ വിൻഡ് ടർബൈനുകളോ നിങ്ങൾ എനിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യണേ എന്നാൽ അത് എനിക്ക് കൂടുതൽ ഉപകാരപ്രദമാവും അല്ലായെങ്കിൽ അത് താങ്ങാനുള്ള പണം എൻ്റെ കയ്യിൽ ഉണ്ടായി എന്ന് വരില്ല അത് നിങ്ങൾ പറയുന്നത് പോലെ സോളാർ പാനലുകൾ തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് അത് എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ക്യാഷിൽ നിങ്ങൾ ഉപയോഗി തരപ്പെടുത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നോട് സംസാരിച്ചത് താങ്കൾക്ക് നന്ദി വിവരങ്ങൾ നൽകിയതിനും താങ്കൾക്ക് വളരെ നന്ദി